ഇപ്പം എല്ലാ ഇപ്പം മിക്ക ആശുപത്രിയിലും രോഗികള്ക്ക് ആവശ്യപ്പെട്ട ആവശ്യമായിട്ടുള്ള മരുന്നുകളും അവരുടെ ഓഫ് നമ്മുടെ ഓപ്പറേഷന് തിയേറ്ററില് ആവശ്യമായ ഉള്ള മെഷീന്സും എല്ലാം ആശുപത്രിയിലും ഇപ്പോൾ അവൈലബിള് ആണ് ഇതിനെല്ലാം വേണ്ടി ഇപ്പോൾ മികച്ച അറിവുള്ള ഡോക്ടര്മാർ ഇപ്പോൾ നമ്മുടെ നാട്ടില് തന്നെ ഉണ്ട് പുറത്ത് പോകേണ്ട പട്ട പട്ടത്ത് പട്ടണത്തിലേക്ക് പോകണ്ട ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പട്ടണത്തിലേക്ക് പോയി നല്ല രീതിക്ക് ഇപ്പം നമ്മുടെ നാട്ടിലും ഇപ്പം ഗ്രാമങ്ങളിലും ഇപ്പോൾ നല്ല ആശുപത്രികള് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഒരു നല്ല രീതി തന്നെ എല്ലാ എല്ലാ രോഗികള്ക്കും ആവശ്യപ്പെട്ട മരുന്നുകള് അവര്ക്ക് ആവശ്യപ്പെട്ട ഡ്രസ്സുകള് അവര്ക്ക് കിടക്കാന് ഉള്ള കിടക്കകള് എല്ലാം ഇപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളില് ഉള്ള ആശുപത്രികളില് എല്ലാം ഇതായിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നുണ്ട്